ആ പിന്നെ ആ എൻ്റെ പേര് അഫ്ത്താവ്ന്നാണ് ആ ഞാനിങ്ങടടുത്തൊരു നൂറ് കുപ്പായം കോ കോളേജിൻ്റെ എൺപത്തെട്ട് തൊണ്ണൂറ്റേഴ് അൻപത്തിനാല് അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൻ്റെ പരിപാടിക്ക് വേണ്ടിട്ടൊര് നൂറ് കുപ്പായം പിന്നെ നൂറ് ഷർട്ട് നിങ്ങടടുത്ത് ഓഡറ് കൊടുത്തിരുന്നു ഓർമയൊണ്ടെന്നെ ആ ഓർമ്മയില്ലേ ആ അപ്പമത് ഇപ്പഴ്ത്തേന് കുപ്പായത്തിന് വരുന്ന ഇരുന്നൂറ് റുപ്പായ തന്നെ വേണോ കോളജിലത്തെ കുട്ടികളല്ലേ ഞങ്ങളുടെ കൈ അങ്ങനെ പൈസയൊന്നും ഉണ്ടാവുകേല ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞെരാം ഞങ്ങൾ നൂറ് നൂറ് കുപ്പായത്തിന് ഞങ്ങൾ ആൾറെഡി ചെയ്തല്ലോ അത് കുറച്ച് കുറക്ക് ഇരുന്നൂറ് റുപ്പയും നൂറ്റന്പത് റുപ്പയും കുപ്പായം കിട്ടുവോ നൂറ്റെ അല്ല നൂറ്റന്പതിന് മതിയോ കാര്യം ഞങ്ങൾ ഹൈന്നേൽ ഞങ്ങടൊപ്പമുള്ള വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ നൂറ്റന്പതിന് എടുക്കുന്നുണ്ട് നിങ്ങടൈടിക്കല്ലേ

അപ്പോൾ തരുവോ നൂറ്റിയന്പതായാല്ലോ നൂറ്റന്പയിന് കുപ്പായം തരുവോ ടീ ഷർട്ട് നൂറ്റിയന്പത് ഇരുന്നൂറ് റുപ്പയാ നിങ്ങൾ പറയണത് അപ്പം ആ നൂറ് ക്വാണ്ടിറ്റിയില്ലേ നൂറ്റിയന്പത് ഇൻറ്റു നൂറ് വരുമ്പോൾ തന്നെ എത്രയായി പതിനെട്ടായിരം ആയില്ലേ അത് അതിൻ്റെ മാത്രം ചിലവുള്ളു അപ്പോൾ ഇങ്ങൾ ഒന്ന് നോക്കി നൂറ്റമ്പതിനാണെങ്കിൽ നമുക്കൊന്ന് ഡീല് ആക്കാമായിരുന്നു നിങ്ങൾ വേറെ കടയിൽ പോം ചാർജറോ അല്ലേ കുഴപ്പയില്ല ഇങ്ങൾ നോക്കി ആയിക്കോട്ടെ നമ്മൾ ഇരു ഇരുന്നൂറ്റി നൂറ്റിയന്പത് റുപ്പയ ആക്കിക്കൊള്ളിൻ സമയമായി നമുക്ക് സമ് ആയിക്കോട്ടെ നൂറ്റി തൊണ്ണൂറിന് നമുക്കുറപ്പിക്കാം അതിന് കുഴപ്പമില്ല തണ്ടോടു കൂടിയാണെങ്കിലെ സത്യത്തിൽ വരുമെങ്കിൽ നൂറ്റി തൊണ്ണൂറ് റുപ്പയ വരും ഓക്കെ